ശരീരഭാരം കൂട്ടാൻ പൊതുവെ എന്താണെന്ന് വച്ച് കഴിഞ്ഞാ പൊതുവെ മുട്ടയുടെ വെള്ള പാല് മുതലായ പ്രോട്ടീൻ കൂടുതലായിട്ട് വരുന്ന അങ്ങനെയുള്ള ഭക്ഷണസാധനങ്ങളാണ് കൂടുതലായിട്ടും ഗ്രാമങ്ങളിലൊക്കെ നമ്മള് കണ്ട് വരുന്നത് അതായത് ശരീരത്തിന് ഭാരം കൂട്ടുന്നതിന് നല്ല ആഹാരം കഴിക്കുക പിന്നെ നെയ്യ് പോലുള്ളവയെക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെയാണ് എന്താ പറയ്യാ ഭാരം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ലേഹ്യം പോലുള്ള നാട്ട് വൈദ്യങ്ങളിൽ ആയുർവേദ തരത്തിലാണെങ്കിൽ ലേഹ്യം അങ്ങനെയുള്ള സാധനങ്ങളും ചില കഷായങ്ങളൊക്കെ ഉപയോഗിച്ചും വണ്ണം കൂട്ടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നവരും ഉണ്ട് പിന്നെ നാടൻ ഭക്ഷണത്തീ തന്നെന്ന് പറയുമ്പോൾ കഞ്ഞീം പയറും കപ്പ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലും ഈ എന്താ പറയുക ഭാരം കൂടാൻ ആഗ്രഹിക്കുന്നവര് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടൊണ്ട് പിന്നെ ഭാരംന്ന് പറയുമ്പൊ ഭാരം കൂട്ടാൻ ഇത്തരത്തിലൊള്ള ഓരോ കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് പിന്നെ നാട്ട് വൈദ്യന്മാരൊന്നൊക്കെ പറഞ്ഞാൽ ചില പച്ച മരുന്നുകൾ എന്തൊക്കെയൊ കൊടുക്കുന്നതായിട്ട് നമ്മള് കേട്ടിട്ടൊണ്ട് പക്ഷെ എന്താന്നുവച്ചാ കൃത്യമായിട്ട് എനിക്കിതിനെ പറ്റി കൂടുതൽ അറിവ് ലഭിച്ചിട്ടില്ല ഇത്തരത്തിലൊക്കെയാണ് കൂടുതലായിട്ടും എന്താ പറയ്യാ വണ്ണം വയ്ക്കാനും ഭാരം കൂട്ടാനൊക്കെയായിട്ട് ആളുകള് കഴിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്